ഞാനാണ് ബൈക്കിൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് മെയിൻ ആയിട്ട് ലഡാക്ക് കാശ്മീർ മണാലി ആ ആ ഒരു ഇതാണ് അത് ഞാൻ സ്ട്രെയ്റ്റ് ആയിട്ട് സോളോ ട്രിപ്പ് അടിക്കാൻ ഉള്ള ഒരിതാണ് ഇതുവരെ പോയിരിക്കുന്നത് ഞങ്ങൾ ആകെ കോയമ്പത്തൂർ പോയിട്ടുണ്ട് അവിടെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു രാത്രി നമ്മുടെ ശിവൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം എന്താണ് ആദിയോഗി അവടെ പോയിട്ട് അവിടത്തെ നൈറ്റത്തെ ലൈറ്റ് ഷോ ഒക്കെ കണ്ടു ഞാനും എൻ്റെ കുറച്ചു കൂട്ടുകാരും കൂടിയാണ് പോയത് ബൈക്കിലാണ് പോയത് പിന്നെ ഉള്ളത് ഇവടെയാണ് പോവാൻ ആഗ്രഹമുള്ളത് ഞങ്ങൾ ഇപ്പം ഇവിടെ ഒക്കെയാണ് ഈ പഠിത്തം കഴിഞ്ഞ പാടെ ഞങ്ങൾക്ക് പോവാനൊക്കെ ആഗ്രഹമാണ് ഞങ്ങൾ ഇപ്പോഴേ അതൊക്കെ പ്ലാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് സ്വന്തമായിട്ട് ഒരു വണ്ടി എടുത്തിട്ട് വേണം പോവാൻ അപ്പോൾ ഏന്തെങ്കിലും ഒരു നല്ല വണ്ടി എടുത്തിട്ട് നമ്മൾ ചങ്ങാതിമാരൊക്കെ ഒരു ഇതോടുകൂടി നമുക്ക് പോകണം എന്നാണ് എൻ്റെ ഇത് പറയുന്നത് നമ്മൾ എന്തായാലും പോവും ഉറപ്പായും ഞങ്ങൾ പോവും അവിടെ എന്താണെന്ന് വച്ചാൽ അവിടെ നല്ല ഒരു ഇതാണ് ഉള്ളത് അവിടെ എന്നു വച്ചാൽ അവരുടേ ചിന്തകൾ തന്നെ വേറെയാണ് അവരുടെ ഇത് പലരുടേയും നല്ല ഒരു സ്വഭാവങ്ങളാണ് അവിടെയുള്ള എല്ലാവരുടേയും നല്ല സ്വഭാവമാണ് അതു കൊ ണ്ടാണ് ഞങ്ങൾക്ക് അവിടെ പോവാനുള്ള ഒരു ഇത് തോന്നിയത്